ആദ്യമായിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ നൃത്തത്തിലേക്ക് എത്തിയതെങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു പാട്ടുകേട്ടിട്ടാണ് ഡാൻസ് കളിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഞാന് നൃത്തത്തിലെക്ക് ആദ്യമായിട്ട് എത്തിയത് പിന്നെ പിന്നെ നല്ലോണ്ണം കളിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാന് നല്ല രീതിയില് കളിക്കാൻ തുടങ്ങി അങ്ങനെ ഞാന് നൃത്തത്തിലേക്ക് എത്തി അഞ്ചാം ക്ളാസിൽ നിന്ന് ഞാൻ മറ്റേ നമ്മളുടെ സ്കൂൾ കലോത്സവം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് അവിടെ അത്യാവശ്യം നല്ല രീതിയില് കളിച്ച് പിന്നെ നാ ആറിലും ഇതേപോലെത്തന്നെ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തു പിന്നെ പ്ലസ്ടൂവിലും ഡിഗ്രിക്കും ഇതേപോലെത്തന്നെ കളിച്ചു അങ്ങനെ നല്ല രീതിയിൽ നൃത്തം കളിക്കാൻ തുടങ്ങി പിന്നെ സംസ്ഥാന തലത്തിലും കളിച്ച് പിന്നെ അങ്ങനെ നല്ല രീതിയില് കളിക്കാൻ തുടങ്ങിയായിരുന്നു അങ്ങനെയാണ് ഞാൻ നൃത്തത്തിലേക്ക് എത്തിയത്